ഹലോ വയനാട് ട്രാവൽ ഏജൻസി പൂക്കോടുണ്ട് പടിഞ്ഞാറത്തറ ഡാമുണ്ട് ബാണാസുരയെന്നും പറയും പിന്നെ അമ്പലത്തിലാണെങ്കിൽ മെയിനായിട്ട് തിരുനെല്ലി അമ്പലമാണ് ഉള്ളത് അവിടെ തീർത്ഥാടനത്തിനും അങ്ങനത്തെയൊക്കെ പറ്റും അല്ലാണ്ടാണെങ്കിലും കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് ഫേമസ് ആയിട്ടുള്ളത് അതിപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ട് പൂക്കോടാണെങ്കിൽ നമുക്ക് കുറേ നടന്നു കാണാനൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് രസമായിരിക്കും പിന്നെ ബോട്ടിങ്ങുണ്ട് അവിടെത്തന്നെ ഫുഡ് താമസം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ എങ്ങനെ വണ്ടിയിലാണോ വരുന്നത് ബാണാസുര ആണെങ്കിൽ ഡാമാണ് മെയിനായിട്ട് അത് നമ്മൾ പോകണ വഴിക്കുതന്നെ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് കുട്ടികളെ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നല്ല സൗകര്യമായിരിക്കും ആ അവിടെ കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള വേറെ ഒരു പാർക്ക് പോലെ ഉണ്ട് നമുക്ക് അത് ഡാമിൻ്റെ അടുത്തേക്കൊന്നും പോകുവാൻ പറ്റില്ല അതിൻ്റെ ദൂരെ ആയിട്ടുള്ള വ്യൂവെ ഉള്ളു അത് നമുക്ക് അങ്ങനെ അടുത്തേക്ക് പോകുവാൻ റിസോർട്ട് പോലെ വരുന്ന അത് പൂക്കോടുതന്നെ ഉണ്ട് അതായത് അവിടെത്തന്നെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിൽ അതായത് പിന്നെ രണ്ട് പേരുളള ഭാര്യയും ഭർത്താവും അങ്ങനെ ആണെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനയെ വരുള്ളൂ പിന്നെ അല്ലാണ്ട് ഫാമിലി

ആ അങ്ങനെ ആണെങ്കിൽ ആ ഉണ്ട് മാം മാം പൂക്കോട് ആണെങ്കിലും ഉണ്ട് ബാണാസുര ആണെങ്കിലും ഉണ്ട് മാം വരുമ്പം കുറച്ച് ഒരു ദിവസം നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതി നമ്മൾ അതിനുള്ള എല്ലാ സജ്ജീകരങ്ങളും നൽകുന്നതാണ് അവിടെ പൂക്കോടാണെങ്കികൽ നമുക്ക് കയറാനുള്ള എൻട്രി ഫീസ് പിന്നെ അറുപത്തഞ്ച് രൂപ അതുപോലെ ബാണാസുര ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെയാണ് പിന്നെ താമസത്തിനാണെങ്കിൽ നമ്മൾ നിങ്ങൾ കുറേ പേരായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള അഡ്ജസ്റ്റ് അഡ്ജിസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തു തരും ആ ഉണ്ട് ഉണ്ട് എല്ലാ സ്ഥലത്തും എല്ലാത്തരം സ്ഥലത്തും അങ്ങനെ വരുന്നുണ്ട് ഫുഡും അക്കൊമഡേഷനും എല്ലാം ഉണ്ട് മാം വരുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ എല്ലാം റെഡി ആക്കി തരാം ആ അതെ അതെ അതെ നമ്മൾ ദൂരെ എന്നാൽ മാം വിളിച്ചാൽ ആ ഓക്കെ ഓക്കെ മാം